അ ഹലോ ഊബർ ബുക്കിംഗ് ഏജൻസി അല്ലെ ഓക്കെ ഞാൻ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തു നിന്നും പോത്തങ്കോടു വരെ പോകാനായിട്ടൊരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായി കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പത്തു മണിക്കായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ ബുക്ക് ചെയ്തിരുന്ന സമയം എനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് കാണിച്ചത് എന്നാൽ ഞാൻ അവിടെ എത്തിയതിനു ശേഷം ശ്രീകാര്യത്തു നിന്നും പോത്തങ്കോടു വരെ എത്തിയതിനു ശേഷം ഡ്രൈവർ എന്നോടു മു മുന്നൂറ്റി അൻപതു രുപ ആവശ്യപ്പെടുകയുണ്ടായി ഇതു കണക്കിലെടുത്ത ഞാൻ അപ്പോൾ തന്നെ പൈസ നൽകാൻ നിരസിച്ചു പക്ഷെ അദ്ദേഹം എന്നോടു വളരെ മോശമായി പെരുമാറുകയും ഒരു എനിക്കു തീരെ സമയമില്ലാത്തതിനാലും അപ്പോൾ ഒരു തർക്കം ഒഴിവാക്കാൻ ആയിട്ടും ഞാൻ പൈസ കൈമാറിയിട്ടുണ്ടായിരുന്നു ജി പേ ചെയ്ത സ്ക്രീൻ ഷോട്ടും കാര്യങ്ങളും എൻ്റെ കയ്യിൽ തന്നെയുണ്ട് അപ്പോൾ ഇത് എനിക്ക് ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഡ്രൈവറിൻ്റെ ഭാഗത്തു നിന്നും തികച്ചും ഒരു മോശപ്പെട്ട അനുഭവമായിട്ടാണ് തോന്നിയത് അതിനാൽ തന്നെ എനിക്ക് ഇതുമായി സംബന്ധിച്ചുള്ള പരാതി രേഖപ്പെടുത്താനാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ഞങ്ങൾക്ക് എത്രയും നല്ല സർവീസ് തരിക എന്നുള്ള നിങ്ങളുടെ ലക്ഷ്യത്തെ തെറ്റായി കാണിക്കുന്ന രീതിക്കായിരുന്നു ഡ്രൈവറുടെ പെരുമാറ്റം അപ്പോൾ അതിനായി ഡ്രൈവറിൻ്റെ പേരിൽ അതായത് കെ എൽ സെവൻ ത്രീ ഫൈവ് സീറോ എന്ന വൈറ്റ് ഇൻഡിഗോ രാവിലെ പത്തു മണിക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പത്തു മണിക്ക് ഓടിച്ച ഡ്രൈവറിൻ്റെ പേരിലാണ് എനിക്ക് കബ്ലെയ്ൻറ്റ് തരാനുള്ളത് ഞാൻ എൻ്റെ യാത്രാ ഡിറ്റേൽസും ഡ്രൈവറിന് പൈസ കൈമാറിയ ഡീറ്റെയിൽസും ഞാൻ ചുവടെ ചേർക്കുന്നതായിരിക്കും അപ്പോൾ ഇതുമായി സ ബന്ധപ്പെട്ട് എനിക്ക് പണം തിരികെ കിട്ടാനും അതുപോലെതന്നെ ഡ്രൈവറിനെതിരെ കർശനമായി നടപടിയെടുക്കാനുമായിട്ടാണ് ഞാൻ ഈ പരാതി രേഖപ്പെടുന്നത് പ്പെടുത്തുന്നത് ഇതിനെ സംബന്ധിച്ച് എത്രയും വേഗം തന്നെ നിങ്ങൾ ഒരു പ്രതിവിധി കണ്ടെത്തുമെന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി